ബൈക്ക് പരിപാലിക്കാറുള്ളതെന്നു വെച്ചാൽ നമ്മളിപ്പം എവിടെ യാത്രകൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ബൈക്ക് നമ്മൾ എന്തെങ്കിലും ചെളിയും കാര്യങ്ങളൊക്കെ ബൈക്കിൻ്റെ എൻജിൻ ഭാഗത്തായാലും നമ്മുടെ ടാങ്കിൻ്റെ ഭാഗത്തായാലും ഒക്കെ കാണാൻ സാധിക്കും നമ്മളത് രീതിയിൽ തുടച്ചു കളയുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഷാമ്പു തേച്ച് കഴുകി കളയുക എന്നാണ് ഒന്നാമത്തെ കാര്യം ചെയ്യാനുള്ളത് ഇപ്പം ബൈക്കിങ്ങ് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്കൊത്തിരി നേരം ഒത്തിരി നാളുകൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നല്ല ഇതിൽ ബൈക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും നമ്മൾ മേടിച്ചപ്പോഴെങ്ങനെ ഉണ്ടായിരുന്നോ ആ രീതിയിൽ പുത്തൻ പോലെ ഇരിക്കത്തുള്ളു ബൈക്കിങ്ങ് ചില സമയങ്ങളിൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മളെ മടിപ്പിക്കാറുണ്ട് എന്നു വെച്ചു നമ്മളിപ്പം ദീർഘ ദൂരമായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ ബൈക്കിങ്ങിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനായാലും നല്ല രീതിയിലുള്ള വേദനകളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ നമ്മൾ ബൈക്കിങ്ങ് ഒരു പക്ഷെ ഒരു രീതിയിൽ മടുപ്പിക്കാറുണ്ട് ആ മടിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദീർഘ ദൂരമായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ബൈക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാലും ഒന്നു നിർത്തി കുറച്ചു നേരം വിശ്രമം എടുത്തതിനു ശേഷം മാത്രമേ പിന്നെയങ്ങ് എടുക്കാൻ പോകാറുള്ളു അങ്ങനെയൊക്കെ നമുക്കീ മടുപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാറുള്ളു നമ്മളിപ്പോൾ ഒരു തൊണ്ണൂറ് കിലോ മീറ്റർ ഇപ്പം നൂറ് കിലോ മീറ്ററൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ മടുപ്പിക്കാറുണ്ട് നമ്മൾ ദീർഘ ദൂരങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ മടുപ്പിക്കാറുള്ളത് നമ്മളിപ്പം ഓഫ് റോഡ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ബൈക്കിങ്ങ് ആ ബൈക്കിലൊത്തിരി ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് അപ്പം വീടായാൽ വീട് അവിടെ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെളി ആയാലും എന്താണെങ്കിലും നമ്മൾ കഴുകി കളഞ്ഞാൽ മാത്രമേ ഇത് അതു പോകുകയും അങ്ങനെ ബൈക്ക് നമുക്ക് പരിപാലിക്കാനും പറ്റത്തുള്ളു ദീർഘ ദൂര യാത്രകൾ നമുക്ക് നല്ല ഇതിൽ ജാഗ്രതയായാലും പ്രജോന പ്രചോദനം നമുക്ക് കിട്ടുക കിട്ടാറുണ്ട് നമ്മൾ യാത്ര ചെയുമ്പോൾ നമുക്ക് ഒത്തിരി അറിവുകളും അവിടെയുള്ള കാഴ്ച്ചകളും ഒക്കെ കാണുമ്പം നമുക്ക് നല്ല രീതിയിൽ പ്രചോദനവും നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നു നമ്മുടെ മനസ്സിൽ തോന്നാറുമുണ്ട് അപ്പോൾ നമ്മൾ ദീർഘ ദൂരമായിട്ടു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സൈഡിലും പല രീതിയിലുള്ള മനുഷ്യരായാലും മൃഗങ്ങളായാലും നല്ല രീതിയിലുള്ള കാഴ്ചകളായാലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രചോദനവും മറ്റുള്ളവരെ യാത്രകളിലേക്ക് കൊണ്ടു പോകാനും ഒക്കെ നമ്മളുടെ മനസ്സിൽ തോന്നാറുണ്ട് ഇതു പോലെ ദീർഘദൂരത്തിൽ നമ്മളുടെ ശരീരത്തിലായാലും മടുപ്പിക്കാറുണ്ടെങ്കിലും ഇതു പോലത്തുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനായാലും സന്തോഷങ്ങളും ഉണ്ടാകാറുണ്ട് ഇനിയും ഇതു പോലത്തുള്ള യാത്രകൾ ചെയ്യണമെന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നാറുമുണ്ട്